നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചും രാജ്യത്തെ കുറിസിച്ചും ഉള്ള എല്ലാ വിവരങ്ങളും ഇൻ്റർനെറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കാരണം ഏത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അപ്പപ്പം നമുക്ക് ഒന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റാത്ത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് എത്ര തവണ ഇപ്പം ഒരുപാട് എ ഐകളും അത്പോലെ തന്നെ ഗൂഗ്ള് ആ ഒക്കെ ഇഷ്ടം പോലെ അവൈലബ്ളാണ് അത്പോലെ തന്നെ ഒരുപാട് ആപ്പ്കളും കാര്യങ്ങളും ഒക്കെ ഇന്ന് അവൈലബ്ളാണ് വാട്സപ്പിലായിരുന്നാലും ഇൻസ്റ്റേലായിരുന്നാലും ഒരുപാട് എ ഐ ആപ്പ്കൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് കാര്യങ്ങളെ കുറിച്ച് സർച്ച് ചെയ്തിട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയറായിട്ട് അതിൽ നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റോറായ് സ്റ്റോറ് ചെയ്ത് വെച്ചേക്കുവായിരിക്കും അത്കൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യം ചോദിച്ചിട്ട് ഉണ്ടെങ്കിലും അതിനെ കുറിച്ച് വ്യക്തമായ ഒരുത്തരം നമുക്ക് ഇൻ്റർനെറ്റ് നമുക്ക് പകർന്ന് തരാറുണ്ട് ഇൻ്റർനെറ്റിൻ്റെ ആധിപത്യം അല്ലെങ്കിലിൻ്റർനെറ്റ് കടന്ന് വന്നത് വളരെ കാലം മുൻപ് ആണെങ്കിൽ പോലും ഇൻ്റർനെറ്റ് നമ്മുടെ നിത്യ ജീവിതത്തിലായിരുന്നാൽ പോലും അത്പോലെ തന്നെ ഏത് വിവരങ്ങളെ കുറിച്ചറിയാൻ ആയിരുന്നാൽ പോലും അത് നമ്മളിൽ അവബോധം ഒരു ബോധമുണർത്താൻ വേണ്ടി ഒരുപാട് സഹായകരമായിട്ടുള്ള ഒരു ഒന്ന് തന്നെയാണ് ഈ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ കടന്ന് വരുവോടു കൂടി തന്നെ സംഭവിച്ചിരിക്കുന്ന ഇൻ്റർനെറ്റ് വന്നതോടു കൂടി തന്നെയാണ് മനുഷ്യരുടെ ഏത് ഒരു അത് ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് തന്നെ ആ ലോകത്തിലെ ഏത് കാര്യങ്ങളെ കുറിച്ചും ഒരു അറിവ് ലഭിക്കുവാനായിട്ട് നമ്മളെ പര്യാപ്തരാക്കുക തന്നെ ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ കടന്ന് വരവോടു കൂടിയാണ് അത്കൊണ്ട് തന്നെ ഇന്ത്യയും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തെ കുറിച്ചും വ്യക്തമാ അറിവ് ഒരു പക്ഷേ നമുക്ക് നേരിട്ട് ലഭിച്ചില്ല എങ്കിൽ പോലും ഏതൊരു സാഹചര്യത്തിലും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെ കുറിച്ചായിരുന്നാലും ഒരു ക്ലിയറായിട്ട് ഉള്ളൊരു വിവരങ്ങൾ നമുക്ക് തരാനായിട്ട് ഇൻ്റർനെറ്റിന് സാധിക്കുന്നുണ്ട് ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ വിവിധ തരത്തിൽ നമുക്ക് ശേഖരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ആ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസാധിപത്യം പുലർത്തുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് ല് പറ സംസാരിച്ച് എന്താണാവശ്യം എന്നോഡിയോലൂടെ പറഞ്ഞ് കൊടുത്താൽ പോലും അത് ലഭിക്കും അത്പോലെ തന്നെ ടൈപ്പ് ചെയ്താണേൽ പോലും ഏത് വിവരത്തെ കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏത് വിവരത്തെ കുറിച്ചും ഒരു അറിവ് ഗൂഗ്ള് നമുക്ക് പകർന്ന് തരാറുണ്ട് അത്പോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസാധിപത്യം പുലർത്തുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാവിണ്യം അത്രയേറെ ഉയർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇംഗ്ലീഷ്നെ കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്ന് ഇല്ലാത്തൊരു ചുരുക്കം ചിലർ എങ്കിലും ഈ ഒരു കേരളത്തിൽ ഇപ്പോഴും നിലവിലുണ്ട് മുൻ തലമുറകൾ തലമുറയിലെ ആളുകൾ ആയിരുന്നാൽ പോലും ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ ആയിരുന്നാൽ പോലും ചുരുക്കം ചിലർ എങ്കിൽ പോലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കാത്തതിൽ ഒത്തിരി ഏറെ ബുദ്ധിമുട്ടുന്നവർ ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചുള്ള വിവരങ്ങളും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയും എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഉള്ളൊരു വിവരം നമുക്ക് പകർന്ന് നൽകാനായിട്ട് ഇൻ്റർനെറ്റിന് സാധിക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ ചോദിച്ചാലും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇപ്പം വിദ്യാഭ്യാസം ഉള്ളവർക്ക് ചോദിക്കാം അത്പോലെ തന്നെ മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ അറിയാന്നുള്ള ടൈപ്പ് ചെയ്ത് അങ്ങനെ ഏത് രീതീലും നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കും നമുക്ക് സംസ്ഥാനത്തെ കുറിച്ചുള്ള അറിവുകൾ ഒക്കെ ലഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത്പോലെ തന്നെ രാജ്യത്തിൽ പ്രവർത്തനങ്ങൾ രാജ്യത്തിൽ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി രാജ്യത്തിലെ ര അധികാരികൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ഓരോ ടൈമിലും അത്പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇൻ്റർനെറ്റ് നമുക്ക് പകർന്ന് തരാൻ ഉണ്ട് പിന്നെ പണ്ട് കാലങ്ങളിൽ അവർ നൽകുന്നുണ്ടോ ഓരോന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്ക്യാർന്നാ പോലും അതിനെ കുറിച്ചുള്ള അറിവും വിവരങ്ങൾ ഒക്കെ അവർ പറഞ്ഞ് തരാറുണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്ന് വരവോട് കൂടീട്ട് അന്നന്ന് നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചുള്ള അപ്ഡേഷൻസ്കൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അപ്ഡേഷൻസ്കളും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് അന്നന്ന് ലഭിക്കാറുണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായിരുന്നാൽ പോലും നമുക്ക് സർച്ച് ചെയ്ത് കണ്ട്പിടിക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഇന്നത്തൊരു സാഹചര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോഴെക്കും എൻ എന്ത് നടന്നിട്ടുണ്ടേലും നമ്മുടെ രാജ്യത്തല്ല സംസ്ഥാനത്ത് പുരോഗമനങ്ങൾ ആയിരുന്നാലും അത്പോലെ തന്നെ രാജ്യത്തിൻ്റെ ഒരു സാങ്കേതിക വിദ്യയെ തകർക്കുന്ന തരത്തിലുള്ള എന്ത് പ്രവർത്തനങ്ങൾ ആയിരുന്നാലും ഉയർച്ച താഴ്ച്ചകളെ കുറിച്ച് എല്ലാവിധ കാര്യങ്ങളെ കുറിച്ചും ഒരു അപ്ഡേഷൻ അന്നന്ന് തന്നെ നമുക്ക് ലഭിക്കാറുള്ളതാണ്